ഇപ്പോഴത്തെ എല്ലാവർക്കും ഈ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് കാരണം എന്നു വച്ചാൽ ഇപ്പം ജനിച്ചു വീഴുന്ന മക്കളെ കയ്യിലും ഫോണാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ പണ്ടുതൊട്ടേ ഫോണിൽ കളിച്ചിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കളിച്ചിട്ട് ടി വിയിൽ കാണുന്നതുകൊണ്ടും അവർ ഓട്ടോമാറ്റിക്കിലി ഇതിന് ഇതൊക്കെ പഠിച്ച് തുടങ്ങുന്നു ഇപ്പോഴത്തത് പ്രായം പ്രായമുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് അറിയാം ഫോണിൽ എങ്ങനെ കളിക്കണം എന്ന് ഞാനൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചത് സ്കൂളിലാണ് കമ്പ്യൂട്ടറിൽ ഐ ടി പഠിച്ചത് ഇപ്പോൾ ഐ ടി ക്ലാസ്സ് ഐ ടി ക്ലാസ്സ് ഉള്ളപ്പോൾ ഇപ്പം കമ്പ്യൂട്ടർ ഓൺ ആക്കാനും അതിൽ വർക്ക് ചെയ്യാനും പഠിച്ച അങ്ങനെ ആണ് പിന്നെ ഫോണ് ഒരു പ്രായം ആയപ്പോൾ ഫോണ് മേടിച്ചു തന്നു പിന്നെ ഓട്ടോമാറ്റിക്ക് പഠിച്ച് എടുത്തതാണ് അത് നമ്മൾ ഒരു കാര്യം ഓട്ടോമാറ്റിക്കായി നമ്മളിങ്ങനെ സ്വന്തം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മളെ മൈന്റിൽ കയറും പിന്നെ ഉള്ളത് നമുക്ക് പഠിപ്പിക്കേണ്ട ആവിശ്യമില്ല നമ്മൾ സ്വന്തം പഠിച്ചുകൊളും അത് നോക്കി